ഹലോ റോയൽ ട്രാവൽസല്ലെ ഒരു ഫാമിലിയായിട്ട് ടൂറ് പോവാനാണ് ഇ പ്ലാനൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലം ഇവിടെ ത കേരളത്തിലാ ക് സോറി കേരളത്തിലന്നെ അടുത്തതായിട്ട് കേരളയ് ആ ആ

ആ ആ ആ ആ അപ്പം അവിടങ്ങ് നമുക്ക് ഒരു ഫാമിലിക്കാണ് ഒരാഴ്ചത്തേക്കാണ് അപ്പം അതിന് പറ്റിയ പ്ലാനും മെമ്പേസ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടാവും ആ കുട്ടികൾ കുട്ടാതാണ് പന്ത്രണ്ട് ആൾ പറഞ്ഞത് കുട്ടികൾ കൂട്ടുമ്പോൾ ഒരഞ്ചാളും കൂടിയുണ്ടാവും അഞ്ച് കുട്ടികളും കൂടിയുണ്ടാവും ആ ആ ആ ഒ ഒരാഴ്ച

ആ ആ ഇപ്പം ആ ഓക്കെ അപ്പം ബഡ്ജറ്റൊക്കെ എങ്ങനെയാണ് വേറെ റിസോർട്ടിപ്പം ഞാനൊരു ഫൈവ് സ്റ്റാറാണ് നോക്കണത് അപ്പം അതിനനുസരിച്ച് ആ ഏതാ ഇപ്പോൾ ഹോട്ടലുള്ളത് ആ ഏതാ റിസോർട്ടുള്ളത് ആ അവിടെ അവിടെ പതിമൂവായിരൊക്കെ തന്നെയാണോ റേറ്റ് ആ ഓക്കെ അപ്പം എത്ര കുറയും അപ്പം ഒരാൾക്ക് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ശരി ഈ നമ്പറന്നെ ഇട് വാട്ട്സപ്പ് നമ്പറ് ആ ശരി